ഇപ്പോൾ നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കില് എനിക്ക് കൂടുതലും അട്രാക്ഷൻ തോന്നുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഓറിയോൺ അതായത് വേട്ടക്കാരൻ എന്ന് പറഞ്ഞൊരു നക്ഷത്രമാണ് അപ്പോൾ അത് നമ്മളെന്താന്ന് വെച്ചു കഴിഞ്ഞാല് കുറെ നക്ഷത്രങ്ങള് കൂടിച്ചേർന്നിട്ടുള്ളൊരു രൂപമാണ് വേട്ട ഓറിയോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് എപ്പോഴൊന്നും നമുക്ക് വിസിബിൾ ആയിരിക്കണം എന്നില്ല അത് ഓരോ ടൈമില് എന്താ പറയുക ഇപ്പം ഓരോ കാ എന്താ പറയുക ഓരോ വേറെ വേറെ സമയങ്ങളിലായിരിക്കും ചിലപ്പം വിസിബൾ ആയിരിക്കുക കാരണം അത് ഒരു നമ്മളെന്താ പറയുക ഒരു ഇപ്പോൾ മാനിനെയൊക്കെ നമ്മള് വേട്ടയാടുന്ന പോലെ നിൽക്കുന്ന് ഒരു ചിത്രം പോലെയാണ് അതുണ്ടാകുക ആ അപ്പം അത് എനിക്ക് നല്ല രീതിയിലുള്ള ആകർഷികമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് തോന്നിയേക്കുന്നത് പിന്നെ ഗ്രഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് ഭൂമിനെ കുറിച്ച് തന്നെ വെണമെങ്കിൽ പറയാം ഭൂമി എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മളുടെ ജീവജാലങ്ങള് പലതരത്തിലുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കിയുള്ള ഗ്രഹങ്ങളിലൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവന്റെ തുടിപ്പ് ഉണ്ടെന്ന് പറയുന്നതല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ട് അറിയില്ല അപ്പം ഭൂമിനെ കുറിച്ച് പറയുകയാണെങ്കില് ഇത്രയും ജീവികൾക്കും എല്ലാ എല്ലാവർക്കും താമാസിക്കാനുള്ളൊരു സൗകര്യം നമ്മുടെ ഭൂമിയില് മാത്രമാണുള്ളത് അപ്പോൾ ഭൂമിയാണ് എനിക്ക് കുറച്ചും കൂടെ ആകർഷികമായിട്ട് തോന്നിയിരിക്കുന്ന ഒരു ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്